ആ ഗുഡ് ആഫ്റ്റർനൂൺ മാം ഞാൻ ശ്രീരാഗിൻ്റെ അമ്മയാണ് ശ്രീരാഗ് എങ്ങനെയാണ് ശ്രീരാഗിൻ്റെ പഠിത്തം ഒക്കെ എങ്ങനെയാണ് ക്ലാസ്സിൽ എങ്ങനെയാണ് അതെ അല്ലേ ഹോംവർക്ക് ആ അതൊക്കെ അവൻ വന്ന് പറയാറുണ്ട് ക്ലാസ്സിൽ അല്ല ക്ലാസ്സിലെന്തൊക്കെ നടന്നൂ ആരൊക്കെ വന്നൂ എന്നൊക്കെ വന്ന് പറയാറുണ്ട് ആ

ആ അവന് മാത്സ് ആണിത്തിരി ബുദ്ധിമുട്ട് അവൻ പറയാറുള്ളത് അപ്പോൾ അത് ഞാനിപ്പോൾ ആ അപ്പോൾ ഹോംവർക്ക് ഒക്കെ ചെയ്യുമ്പോൾ കൂടെ നിർത്തി നിർത്തിയൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് മാക്സിമം ഇല്ല അടുത്ത് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയല്ലേ തുടങ്ങി കുറച്ചല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ നോക്കിയിട്ട് അവനെങ്ങനെയാണ് അവന് പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വിടാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ആ അതെ അല്ലേ ആ ഓക്കെ ഓക്കെ അവനിപ്പോൾ ആ അവന് ഒരു ഒരാഴ്ച ലീവ് വിടു അവനേ നല്ല പനിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ലീവിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി പിന്നെ എക്സാം ഇനി ഇപ്പോൾ അടുത്തെങ്ങാനും ഉണ്ടാവുമോ ഇൻ്റെണൽസ് അങ്ങനെ എന്തെങ്കിലും

അതെ അല്ലേ ഞാനൊട്ടും അതായത് ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയി അവൻ രണ്ടുദിവസം അഡ്മിറ്റ് ആയിരുന്നു ആ അപ്പോൾ അഡ്മിറ്റ് ആയി ഇപ്പോഴാണ് ഒന്ന് അവൻ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നത് അപ്പോൾ അവന് എന്തായാലും ഒരാഴ്ച റെസ്റ്റ് വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവന് ലീവിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ആ ആ അതെ ആ നോട്സ് ഒക്കെ ഇപ്പോൾ ഒരാഴ്ച

ആ അതെയതെ ആ അതെയതെ അത് ശരിയാണ് പക്ഷെ ഇതിപ്പോൾ ഒട്ടും പറ്റാത്ത രീതി പനി അറിയില്ല അവൻ ക്ലാസിൽ നിന്ന് ഫ്രൈഡേ ക്ലാസ് വിട്ട് വന്നുകഴിയുമ്പഴ്ത്ത് അന്നത്തെ ദിവസം തലവേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അതുകഴിഞ്ഞു പിന്നെ മഴ കൊണ്ടു എന്ന് തോന്നുന്നു ആ രണ്ട് രണ്ടുദിവസം മൂന്നാമത്തെ ദിവസം അതായത് മൺഡേ വൈകിട്ടാണ് ഡിസ്ചാർജ് ആയത് അങ്ങനെ ആ ക്ഷീണം നല്ല ക്ഷീണമാണ് എണീക്കാൻ പറ്റുന്നില്ല പിന്നെയാണെങ്കിൽ ഇപ്പോൾ പനി ഇപ്പോൾ എല്ലായിടെയും പനി വരുന്നുണ്ടല്ലോ അതിൻ്റെയാണ് അതാണ് ആ പിന്നെ അതെയതെയതെ ഇപ്പോൾ ഡെങ്കു അങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ് ചുമയും അതെയതെയതെ ആയിരിക്കും ആ അതെയതെ മരുന്നൊക്കെ മരുന്നൊക്കെ കൊടുക്കും ഭക്ഷണമൊക്കെ നല്ലവണ്ണം കഴിക്കാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ ആണ് പക്ഷേ ക്ലാസ്സിലേക്ക് വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അത് ആ ക്ഷീണമുണ്ട് നല്ല ക്ഷീണമുണ്ട് എണീക്കുന്നില്ല അവൻ ആ ആ അതെ എക്സാം എങ്കിലും അറ്റൻഡ് ചെയ്യേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ വന്നതുകൊണ്ട് രക്ഷപെട്ടു ഇനിയിപ്പം ആ ആ ആ ആ ഇനിയിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിലിപ്പോൾ ഫ്രൈഡേ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവനെ അയയ്ക്കാം പിന്നെ നോട്സ് ഒക്കെ ഞാനിപ്പോൾ ഹെൽപ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് എഴുതാനൊക്കെ നോട്സ് ഒക്കെ കമ്പ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഹെൽപ് ചെയ്യാം വിചാരിക്കുന്നുണ്ട് ആ പ്രിൻസിപ്പളോട് ഒന്ന് പറഞ്ഞാൽ മതി ആ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ മാം